നിലവിൽ ഞങ്ങളുടെ സംസ്ഥാനത്ത് നമ്മുടെ സംസ്ഥാനമായ കേരളത്തില് അങ്ങനെ ഗോത്രങ്ങൾ ചെയ്യുന്ന തൊഴിലുകൾ എന്ന് വച്ചേക്കുമ്പോൾ എൻ്റെ അറിവിൽ അങ്ങനെയല്ല പക്ഷേ നമ്മുടെ നാട്ടിൻ പുറത്ത് കാണുന്ന ആശാരിമാര് പിന്നെ ബാർബർമാര് തട്ടാൻമാര് ഇവർ പാരമ്പര്യമായിട്ട് ചെയ്തുവരുന്ന തൊഴിലുകൾ അങ്ങനെ ഉള്ള തൊഴിലുകൾ നിലവിൽ കാണാറുണ്ട് പിന്നെ നമ്മളെ ഈ മലപ്പുറം ഭാഗത്ത് കൂടുതൽ മുസ്ലിം കുടുംബങ്ങളായതിനാലും ഒപ്പന പിന്നെ കോൽക്കളി തുടങ്ങിയ കളികളും ദഫ്മുട്ടുകളും അങ്ങനെയുള്ള കലാരൂപങ്ങളാണ് ഈ ഭാഗത്ത് കൂടുതൽ കാണുന്നത് പിന്നെ ഓണത്തിന് നമ്മുടെ അയൽവാസികളുടെ വീട്ടിലൊക്കെ പിന്നെ നൃത്തങ്ങളും മറ്റ് മോഹിനിയാട്ടം അങ്ങനെയുള്ള ഇപ്പോള് അമ്പലത്തില് അടുത്തുള്ള അമ്പലത്തിലൊക്കെ മോഹിനിയാട്ടം പിന്നെ അങ്ങനെയുള്ള കലാരൂപങ്ങളും നടക്കാറുണ്ട് പിന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിലാണെന്നുണ്ടെങ്കിൽ അവരുടെ ഉത്സവത്തിന് അവരുടെ ആഘോഷത്തിനൊക്കെ മാർഗ്ഗം കളി പോലെയുള്ള കലാരൂപങ്ങളുമാണ് കൂടുതൽ കാണുന്നത് നിലവിൽ ഇത്തരം കാര്യങ്ങൾ മാത്രമേ എൻ്റെ അറിവിൽ ഉള്ളൂ